ആ ഹലോ ആ ബീനയല്ലേ ഹാലോ ബീനയല്ലേ ആ ഇത് കൊച്ചിൻ്റെ മ്യൂസിക് ടീച്ചറായിര്ന്നേ ആ ഡാൻസ് ടീച്ചറായിരുന്നു ആ അല്ലാ കൊച്ചിൻ്റെ ഡാൻസിന്റെ കാര്യം പറഞ്ഞാരുന്നല്ലോ അവിടെ നമുക്ക് കൊച്ചിന് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ആ വരുന്ന കാര്യത്തെക്കുറിച്ചു പറഞ്ഞായിരുന്നല്ലോ ആ ടീച്ചറെ ഞാനത് ചോദിച്ചത് അവിടെ വന്ന് പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത് അല്ലേ അങ്ങനെയാണ് എനിക്കു മനസിലായത് അല്ലെ ആ ടീച്ചറെ അത് ഞാൻ പറയട്ടെ അവിടെ വന്നു പഠിപ്പിക്കുക എന്നു പറയുമ്പോള് നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടോ പിന്നെ ഈ പറഞ്ഞതു മാതിരി ടീച്ചറെ അത് ഞാൻ പറയുന്നത് ഇവിടുന്ന് എനിക്ക് നല്ല ഡിസ്റ്റൻസുണ്ടല്ലോ അവിടെ വരുന്നതിന് പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ഥല സൗകര്യങ്ങള് അവിടെ കുറവാണെന്നാണ് എനിക്ക് തോന്നണത് അതിനേക്കാളിലും പിന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് നമ്മുടെ സെൻ്റെറിലേക്കു വരാൻ പറ്റുവാണെങ്കിലേ നന്നായിരുന്നു അയ്യോ ടീച്ചറെ പക്ഷേങ്കില് എനിക്ക് ടീച്ചറാ പറയുന്ന സമയത് എനിക്ക് എത്താൻ പറ്റുമെന്നും തോന്നുന്നില്ല പിന്നെ തന്നെയല്ലതാനും അവിടെ വന്നുകഴിഞ്ഞാലും അതിനുള്ള സൗകര്യങ്ങള് ഒരു ഡാൻസിനു പറ്റിയ സൗകര്യങ്ങളവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല ആ പിന്നെ ഈ പറഞ്ഞതുപോലെ ടീച്ചറെ ഞാന് പറയട്ടെ ടീച്ചറെ പ്ലീസ് അതായത് പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ അവിടെ ഈ പറഞ്ഞതുപോലെ നോയ്സ് ഭയങ്കര ശബ്ദമാണ് കാരണം നമുക്ക് മ്യൂസിക്കൊക്കെ ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞാലും ആ കുട്ടിക്ക് അങ്ങനെ ശ്രദ്ധിക്കാനും സാധിക്കില്ല അതു വലിയ ഒരു പ്രശ്നമാണെ കാരണം ഡാൻസെന്നൊക്കെ പറയുമ്പോള് ആ പാട്ട് അതിൻ്റെതായ രീതിയില് ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാലല്ലേ അത് ഉൾക്കൊണ്ടു കളിക്കാൻ പറ്റത്തുള്ളൂ ആ അതെ അതുകാരണംകൊണ്ട് അവിടെ വന്നു പഠിപ്പിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്കു തോന്നുന്നത് കൊച്ചിനെ എങ്ങനെയെങ്കിലും ഏതേലുമൊരു സമയം അഡ്ജസ്റ്റെയ്തെ ഈ സെന്ററിലേക്കൊന്നു കൊണ്ടുവരികയായിരുന്നെങ്കില് അതായിരുന്നു അതു നന്നായിരിക്കുമായിരിക്കുമെന്നെനിക്കു തോന്നണേ ആ അതില് ആ ആ ആ ആ ആ ടീച്ചറെ ഞാന് പറ്റുമോ ടീച്ചറൊന്ന് ശ്രമിച്ചു നോക്ക് മ് ഇവിടെ കൊണ്ടുവന്നാക്കാൻ പറ്റുമോ എന്നു നോക്കൂ പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ആ അത് ഇനിയിപ്പോള് ഒരു നിവൃത്തി ആ കളിക്കാൻ കുഴപ്പമില്ല അവള് ഡാൻസിനൊക്കെ താല്പര്യമുണ്ട് അതിനുള്ള കഴിവുള്ള കുട്ടിയാണ് അപ്പോള് അതൊന്നും പ്രശ്നമില്ലായിരുന്നു ഇനി ടീച്ചര് ശ്രമിച്ചുനോക്കൂ പറ്റുമെങ്കില് ഇവിടെ കൊണ്ടുവന്നാക്കൂ അതല്ല ഇനിയിപ്പോള് ഒരു നിവൃത്തിയും ഇല്ല എങ്കില് ഞാനങ്ങോട്ടു വന്ന് അവിടെ എങ്ങനെയെങ്കിലും ടെറസിൻ്റെ മുകളിലോ അവിടെയെവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നു നോക്കാവേ

ആ ശരി ശരി ആ ആലോചിച്ചിട്ട് പിന്നെ വിളിച്ചുപറയൂ കെട്ടോ എന്താണെന്നുവച്ചുകഴിഞ്ഞാലേ ആ തീരുമാനം എന്താണെന്നു വച്ചുകഴിഞ്ഞാൽ പറഞ്ഞേരെ ഓക്കെ ഓക്കെ ബൈ ഓക്കെ ഓക്കെ ആ ശരി ശരി ഓക്കെ ഓക്കെ ബൈ ബൈ ബൈ